ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് എം എൽ എ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒ ആർ കേളു ആണ് എം എൽ എ നമ്മുടെ വാർഡിൽ ആദ്യം പ്രസിഡൻറ്റ് ആയിട്ട് നിന്നതാണ് പുള്ളി ഏഴാം വാർഡിൽ പ്രസിഡൻറ് ആയിട്ട് നിന്ന ഒരാളാണ് ഒ ആർ കേളു എന്ന് പറഞ്ഞ ആൾ അപ്പം പുള്ളി നല്ല രീതിയിൽ എന്താണ് പറയുക വോട്ടിങ്ങിൽ ജയിച്ച് വന്ന ഒരാളാണ് അപ്പോൾ പുള്ളി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മാനന്തവാടിയിലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പം റോഡിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ പനവില്ലി ഉള്ള റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അപ്പം അത് കോൺട്രാക്ടറിൻ്റെ ഒരു മോശമായിട്ടുള്ള നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അവരുടെ ഇപ്പോൾ ഇവർ ഇന്നിപ്പോൾ എം എൽ എമാർ ഒക്കെയാണെങ്കിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുംകൂടി ബെറ്റർ ആയിട്ട് അവർക്ക് എന്താണ് പറയുക മാനന്തവാടിനേയും എല്ലാ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും പിന്നെ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം മാനന്തവാടി ടൗൺ മൊത്തം വൃത്തിഹീനമായിട്ടുള്ള ഒരു ടൗൺ ആയിട്ടാണ് മാറിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാരും മുറുക്കിത്തുപ്പുക വേസ്റ്റ് ഇടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും ചെയ്യാറ് പിന്നെ നമ്മുടെ എം എം വയനാടിൻ്റെ എം പി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ആണ് ഇപ്പം രാഹുൽ ഗാന്ധിനെ അറിയാത്ത ആരുമില്ല ഇന്ത്യ ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും രാഹുൽ ഗാന്ധിനെ അറിയാം വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി ഇപ്പം രാഹുൽ ഗാന്ധിനെ നേരിട്ട് അങ്ങനെ കണ്ടിട്ട് ഒന്നുമില്ല കാണാൻ അങ്ങനെ പോയിട്ടുമില്ല എം എൽ എ അതായത് ഒ ആർ കേളുവിനെ ഞാൻ ഇഷ്ടംപോലെ പ കണ്ടിട്ടുണ്ട് പിന്നെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള പ്രസിഡൻറ്റ് പി വി ബാലൻ ആണ് പി വി ബാലൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇതിൽ തന്നെ വാർഡിൽ നിന്നിട്ട് നമ്മള വാർഡ് മെമ്പർ ആയി വാർഡ് മെമ്പർ ആയിട്ടാണ് പുള്ളി പ്രസിഡൻറ്റ് ആയിട്ടൊക്കെ വന്നത് അപ്പം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നുണ്ട് എന്ന് പറയാം പക്ഷേ ഇപ്പം എന്താണ് പറയുക ചെയ്യുന്നില്ല എന്നും വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്